ഇഷ്ടപ്പെട്ട സാഹിത്യ കഥാപാത്രങ്ങൾ എന്നു വെച്ചാൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് കഥാകാരനെ ഇഷ്ടമാണ് അതുകൊണ്ടു തന്നെയായിരിക്കും അതിലെ കഥാപാത്രങ്ങൾ ഇഷ്ടമാണ് പിന്നെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ തന്നെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്നുള്ള ഒരു കഥയുണ്ട് അപ്പോൾ ഇതിലൊക്കെ അല്ല പാത്തുമ്മയുടെ ആടിലെ പാത്തുമ്മ ആടിനെ വളർത്തുന്നതും ആടിനോടുള്ള സ്നേഹവും അതിനെ വേണ്ടിയിട്ട് പെടുന്ന ഒത്തിരി ത്യാഗങ്ങളൊക്കെ സഹിക്കുന്നതും മറ്റുള്ളവരുമായിട്ട് ആടിനെ സപ്പോർട്ട് ചെയ്തു കൊണ്ട് അവരോട് സംസാരിക്കുന്നതും കുടുംബത്തിൽ ആണെങ്കിലും പ്രയാസങ്ങളിലൂടെയൊക്കെ പോകുമ്പോഴും ആടിനെ ഒത്തിരി സ്നേഹത്തോടെ നോക്കുന്ന ഒരു ആടിൻ്റെ പാലിനെ വിറ്റ് ജീവിക്കുന്ന ഇങ്ങനെയുള്ള ആ ഒരു സാധാരണ ഒരു പാവം പിടിച്ച ഒരു വീട്ടിലെ ഒരു കഥാപാത്രമായിട്ടാണ് പാത്തുമ്മയെ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു പാവപ്പെട്ട വീടുകാരനെ ഒരു ജീവിത സാഹചര്യമൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ പാത്തുമ്മയുടെ ആട് എന്നുള്ള ആ കഥയിലെ ആ കഥാപാത്രത്തെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെയുള്ള വിശ്വവിഖ്യാതമായ മൂക്കെന്നൊരു നോ വിഖ്യാതമായ മൂക്ക് ഏതാണ്ട് ഈ മൂക്ക് നീണ്ട് നീണ്ട് നീണ്ട് വരുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ കഥയൊക്കെ വളരെ രസകരമായിട്ട് നമുക്ക് വായിക്കാനും ചെറുപ്പത്തിലൊക്കെ ഇത് വായിച്ചിട്ടുള്ള കഥകളൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രങ്ങളാണ് അപ്പോൾ ഒന്നാമത് ബഷീർ എന്ന് പറയുന്ന ആ സാഹിത്യകാരൻ ഒത്തിരി കഴിവുകളുള്ള ആ സാഹിത്യകാരനെ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഥകളും ഒക്കെ അപ്പം ആ രചനകളുടെ രചയിതാവായ ആ കഥാകൃത്തിനെയും അതുകൊണ്ടു തന്നെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെയും ഇഷ്ടമാണ്